അതെ പറയൂ ഇതാരാണ് ആ ഉണ്ട് ഉണ്ട് പറയൂ പറയൂ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരുവിധം എല്ലാ മീനും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ഇറക്കേണ്ടി വരും നിങ്ങൾ

ആ ഓക്കെ ഇല്ല ഇല്ല നമ്മുടെ അടുത്ത് ഫ്രഷ് മാത്രം ഉളളൂ പിന്നെ കെമിക്കൽസ് ഒക്കെ ഇട്ട് വരുന്നതുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ അത് പ്രമോട്ട് ചെയ്യാറില്ല അധികവും ആ പറഞ്ഞോ ആ ഞങ്ങളിപ്പോൾ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേർ നേരത്തെ പോയിട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളാണ് പിന്നെ പ്രീ ഓർഡേസ് മാത്രമേ എടുക്കാറുളളൂ നല്ല വൃത്തിക്ക് പാക്കിങ്ങ് ഒക്കെ ചെയ്ത് ക്ലീനിങ്ങ് വേണമെങ്കിൽ അതും ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്യാറുളളൂ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ക്ലീൻ ചെയ്തിട്ടാണോ ക്ലീൻ ചെയ്യാണ്ട് ആണോ എങ്ങ് എത്ര നിങ്ങൾ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ ചെയ്തുതരുന്നതാണ് അതെ അതെ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ റെഡി ടു കുക്ക് എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തുതരുന്നതാണ് അയഡിൻ കണ്ടൻറ് ഒക്കെ വേണ്ട മറ്റേത് നല്ല മീൻ അല്ലേ

ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം എന്നാൽ ഡെയിലി വരുന്ന മീനുകളുടെ ലിസ്റ്റ് നമ്മൾ വാട്ട്സപ്പിലാണ് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യൽ അപ്പം നിങ്ങൾ അപ്പം നമ്മൾ ഒരു കസ്റ്റമർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നമ്മുടെ എല്ലാ മീനിൻ്റെ വിലയും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ച് തരുന്നതാണ് ഒരു എട്ട് മണി ടു ഒമ്പത് മണീൻ്റെ ഇടയിൽ ഓർഡർ ചെയ്യുക നമ്മൾ വീട്ടിൽ രാവിലെ കൊണ്ടുതരുന്നു അതെ ഈ സെയിം നമ്പറിലാണ് ഞങ്ങളുടെ വാട്ട്സപ്പ് ഉള്ളത് അതിലാണ് ഞങ്ങളുടെ ഫുൾ എല്ലാ ഡീലിംഗ്സും നടക്കുന്നത് ആ നാളെ മുതലാണൊ നിങ്ങൾക്ക് വേണ്ടത് ആ അപ്പോൾ നാളെ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ അങ്ങോട്ട് അയച്ച് തരുന്നു നിങ്ങൾ ഓർഡർ ചെയ്യുന്നു നമ്മൾ രാവിലെ അവിടെ എത്തിച്ചുതരുന്നു പിന്നെ കട്ട് ചെയ്ത മീനിന് കുറച്ച് റേറ്റ് കൂടും ആയിക്കോട്ടെ ശരി താങ്ക് യു